പരമ്പരാഗതമായ കായിക ഇനങ്ങളെ സംരക്ഷിക്കാന് ഞങ്ങളെ നാട്ടിലൊരു പിന്നെ ഞങ്ങളൊരു ക്ലബ് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് വികാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നു പറഞ്ഞിട്ടൊരു ക്ലബ്ബ് ആ അത് കായിക പരമായ കാര്യങ്ങളെ പിന്നെ പരിപോഷിപ്പിക്കാനും കുട്ടികളെ പിന്നെ കായിക ഇനങ്ങളിലുള്ള പിന്നെ കഴിവ് കണ്ടെത്തി വളർത്തിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ക്ലബ്ബ് ഞങ്ങള് പിന്നെ ആദ്യം കാലം ഒരു പത്ത് മുപ്പത് വർഷം മുന്നേ തന്നേള്ളൊരു പ്രവർത്തിച്ച് വരുന്നൊരു ക്ലബ്ബാണ് അതിപ്പോള് കാലാകാലങ്ങളായി ഓരോ പിന്നെ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് അതിങ്ങനെ മാറി മാറി വന്ന് ഇപ്പഴും അത് നല്ല രീതിയില് തന്നെ കലാകായിക കാര്യങ്ങളെ ഞങ്ങള് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് അതിലിപ്പോള് പിന്നെ കുറേ കായിക ഇനങ്ങള് നമ്മളിപ്പോള് നമ്മുടെ നാട്ടിലൊക്കെ പകിട കളി അങ്ങനെ കുറേ കളികളുണ്ട് കാണാത്ത നമ്മള് കളരിപ്പയറ്റ് അങ്ങനത്തെ കളികളൊക്കെ പിന്നെ നമ്മളിപ്പോള് നമ്മള് ഇവിടെ അറിയുന്ന കുറച്ച് തലമൂത്ത കാർന്നോന്മാരെയൊക്കെ കൂട്ടിയിട്ട് നമ്മളത് ചെറിയ കുട്ടികൾക്ക് പകർന്ന് നൽകാനും പിന്നെ അത് എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ച് കൊടുക്കാനൊക്കെ നമ്മള് പഴയ ആ ഒരു അറിയുന്ന പിന്നെ ആൾക്കാരുണ്ടല്ലോ അതക്കെ കൂട്ടിയിട്ട് നമ്മള് ആ കഴിയുന്ന രീതിയില് ക്ലബ്ബ് നല്ല രീതിയിൽ തന്നെ അത് ചെയ്യുന്നുണ്ട്